പൂന്തോട്ടം ഇപ്പം തുടങ്ങാൻ ആഗ്രഹിയ്ക്കുന്നവരാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടത് പറഞ്ഞാൽ പൂന്തോട്ടം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ സ്പെയ്റ്റ്സ് സ്പേയ്സ് കണ്ടെത്തണം അതിന് വേണ്ടി മാത്രം നല്ല നല്ല സൂര്യപ്രകാശവും നല്ല സൺ ലൈറ്റും സൺ ലൈറ്റ് കിട്ടണ സ്ഥലത്തായിരിയ്ക്കണം ഈ പൂന്തോട്ടം ഒക്കെ വെയ്ക്കണ്ടത് സോ നമ്മളാദ്യം പൂക്കൾ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ചെടികളാണ് വേണ്ടെതെന്ന് വെച്ചു പറഞ്ഞു വെച്ചാൽ ആദ്യം അതൊക്കെ കളക്റ്റ് ചെയ്തിട്ട് ഒരു പോട്ട് പോട്ട് സപ്പറേറ്റ് ആയിട്ടുള്ള പോട്ടുകൾ വാങ്ങീട്ട് അതിൽ നമുക്ക് ആവശ്യമായ വള പൂക്കൾ ചെടി വളരാനാവശ്യമായ വളങ്ങളൊക്കെ ചേർത്തിട്ട് ചകിരി ചോറ് അത് പോലെ അങ്ങനെയുള്ള വളങ്ങളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയ മണ്ണ് വേണം ഉപയോഗിക്കാൻ അപ്പോഴാണ് ചെടികൾ വളരുവൊള്ളു അപ്പോൾ നമ്മളതിനെ ഒക്കെ ഒരു തൊട്ടീലാക്കീട്ട് അതിന് സപ്പറേറ്റ് സെപ്പറേറ്റായിട്ട് വെയ്ക്കണം പിന്നെ ഡെയ്ലി വെള്ളം ഒഴിക്കണം ചില ചെടികൾക്ക് വെള്ളം നിറയെ ആവശ്യമുണ്ടാവും ചില ചെടികൾക്ക് അത്ര വെള്ളം ആവശ്യമുണ്ടാവില്ല സോ അതൊക്കെ നോക്കീട്ട് വേണം നമുക്ക് വെള്ളം ഒക്കെ ഒഴിയ്ക്കാൻ വേണ്ടീട്ട് ചില ചെടികൾക്ക് ചെടികൾ പെട്ടെന്ന് വാടും സൂര്യൻ തട്ടിയാൽ പെട്ടന്ന് വാടും അങ്ങനെയുള്ള ചെടികൾക്കൊക്കെ അങ്ങനുള്ള ചെടികളൊക്കെ കുറച്ച് തണലുള്ള സ്ഥലത്ത് വെയ്ക്കാൻ വേണ്ടി ശ്രമിക്കണം പിന്നെ എപ്പോഴും നമ്മൾ ചെടികൾ കേട് വരുന്നുണ്ടോ ഇല ഒക്കെ എന്തെങ്കിൽ വന്ന് കഴിയ്ക്കന്നുണ്ടോ അല്ലെങ്കിൽ പുഴുക്കളോ എന്തിനെ ഒക്കെ ചെടികളെ ആക്രമിയ്ക്കുന്നുണ്ടോയെന്നൊക്കെ ഇടയക്കിടയ്ക്ക് ശ്രദ്ധിക്കണം അഥവാ അങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആ ഇലകളൊക്കെ വെട്ടി കളയാനും പിന്നെ അത് വരാണ്ടിരിയ്ക്കാൻ വേണ്ടീട്ട് നോക്കണം പിന്നെ റോസൊക്കെ വെയ്ക്കണ സമയത്ത് അയി റോസ് വിരിഞ്ഞതിന് ശേഷം അതിൻ്റെ നെയിൽ ഭാഗം കട്ട് ചെയ്ത് കളയണം എന്നാലേ അടുത്ത ചെടികളൊക്കെ വരുകയുള്ളു അപ്പം നമ്മൾ വീട്ടിലുണ്ടാവുന്ന പച്ചക്കറി വേസ്റ്റ് ഒക്കെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുക അതൊക്കെ ചെടികൾക്ക് നല്ലതാണ് മുട്ടയുടെ തോട് പച്ചക്കറികളുടെ തോല് ഒക്കെ ഇട്ടു കൊടുക്കുക അതൊക്കെ ചെടികൾക്ക് നല്ലൊരു വളമാണ് അപ്പം ചെടികൾ നന്നായി വളരാൻ വേണ്ടി അത് സഹായിയ്ക്കും